സാധാരണ നമ്മള് എന്താണ് പറയുക ഞാന് നട്ടുവളർത്തിയ ചെടികളില് വേനൽക്കാലത്തൊക്കെ പെട്ടെന്ന് കരിഞ്ഞുപോകുന്നൊരു ടൈപ്പ് ചെടിയെന്ന് പറഞ്ഞാല് ഡാലിയയൊക്കെ പെട്ടെന്ന് തന്നെ എന്താണ് പറയുക കരിഞ്ഞുപോകുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാല് മഴക്കാലമാകുമ്പോഴത്തേക്കും എന്താണ് പറയുക അതിൻ്റെ കിഴങ്ങ് ഒരിക്കലും നശിക്കില്ല കാരണം കിഴങ്ങ് മണ്ണിനടിയില് സെയ്ഫ് ആയിട്ടിരിക്കും അത് മഴയൊക്കെ പെയ്ത് ചെറിയൊരു തണുപ്പ് കിട്ടുമ്പോഴത്തേക്കും പൊന്തി എന്താണ് പറയുക നല്ല രീതിയില് തന്നെ പൊങ്ങിവരികയും ചെയ്യുന്നൊരു ചെടിയാണത് പിന്നെന്താണ് പറയുക വേനൽക്കാലത്തായാലും തണുപ്പുള്ള കാലത്തായാലും ചെടികള് നമ്മള് പ്രൊട്ടക്ട് ചെയ്യും കാരണം ആവശ്യമുള്ള ടൈമില് വെള്ളം കൊടുക്കുകയും അല്ലാത്ത സമയത്ത് നമ്മളതിനെ എന്താണ് പറയുക കറക്റ്റ് പരിപാലിക്കുകയുമൊക്കെ ചെയ്തിട്ടാണ് നമ്മള് കൊണ്ടുവരുന്നത് കാരണം എന്താണ് പറയുക ചെടികൾക്കൊക്കെ അതിൻറ്റേതായ രീതിയില് നമ്മള് വളങ്ങളും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത് കൊണ്ട് അത് വേനൽക്കാലത്തായാലും മഴക്കാലത്തായാലും എന്താണ് പറയുക നല്ല രീതിയില് തന്നെ ചെടികളൊക്കെ നമ്മള് പ്രൊട്ടക്ട് ചെയ്ത് തന്നെയാണ് കൊണ്ടുനടക്കുന്നത് അപ്പോള് ചെടികൾക്കൊന്നും അങ്ങനെ എന്താണ് പറയുക ദോഷകരമായ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ വേനൽക്കാലത്തായാലും എന്താണ് പറയുക തണുപ്പുള്ള കാലത്തായാലും വന്നിട്ടില്ല കാരണം അതിനുവേണ്ട കാര്യങ്ങള് നമ്മള് ചെയ്തുകൊടുക്കുന്നുണ്ട് എന്താണെന്നുവെച്ചാല് വളങ്ങളായാലും വേനൽക്കാലത്ത് വേണ്ട വെള്ളമായാലും എല്ലാം ടൈമില് നമ്മള് ചെയ്തുകൊടുക്കുന്നുണ്ട് ചെടികൾക്കൊന്നും വലിയ ബുദ്ധിമുട്ടുകള് നമ്മള് കണ്ടുവരുന്നില്ല